പോസിറ്റീവ് എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ട് ഫീല് ചെയ്തത് ഞാനൊരു ഷൂ മേടിച്ചപ്പോഴാണ് വളരെ കാലം ഞാൻ ആഗ്രഹിച്ചാണ് ഞാൻ ആ ഷൂ മേടിച്ചത് പിന്നെ കുറെ റിവ്യൂവും കാര്യങ്ങളും അതിനെ പറ്റി കുറെ ഇത് യൂട്യൂബിൽ ഒക്കെ നോക്കി ഗൂഗിളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചത് നല്ല കമ്പനി സാധനം ആണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പം തന്നെ ഇതിന് നല്ലൊരൂ പ്രൈസുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഫണ്ടും കാര്യങ്ങളൊക്കേ പറ്റുന്നത് പോലെ കുറെ പണിക്കൊക്കെ പോയിട്ടാണ് ഞാനിത് മേടിച്ചത് മേടിച്ച് ഞാനിത് യൂസ് ചെയ്ത് ഞാൻ ആ ഷൂ ഇട്ടപ്പം തന്നെ എനിക്ക് കാലൊക്കെ ഭയങ്കർ കംഫർട്ടബിളായിട്ട് തോന്നി അതായത് ഷൂ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുവില്ലായിരുന്നു കാലും അങ്ങനെ ഹീറ്റ് ആകുന്നില്ല പിന്നേ നന്നായിട്ട് ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ആയാലും ഇത് എന്താ പറയുക എൻ്റെ കാലും ഒക്കെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു പിന്നത് കുറെ കാലം നീണ്ട് നിൽക്കുകയും ചെയ്തു ആ ഷൂ യൂസ് ചെയ്തപ്പോൾ പിന്നേ അത് വാഷ് ചെയ്യുമ്പോഴായാലും അത് അങ്ങനെ ഒന്നും എടുത്ത് വാഷ് ചെയ്യാൻ പാടില്ല നമ്മള് നോക്കി വേണം ഇതാക്കാൻ അതായത് ഈ പേസ്റ്റ് ഒക്കെ വെള്ളത്തിൽ കലക്കി അതിൻ്റെ പതയൊക്കെ വെച്ച് വേണമായിരുന്നു കഴുകാന് പിന്നേ ഷൂ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊര് ഷൂ ഊരിയൊക്കെ വെക്കുമ്പോഴായാലും നമ്മുടെ കാലിനൊന്നും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല ഇപ്പം പോസിറ്റീവ് പ്രൊഡക്റ്റായിട്ട് ഫസ്റ്റ് എസ്പീരിയൻസ് ചെയ്തത് ഇതാണ്